നമ്മുടെ വയനാട്ടില് സ്കൂൾ കുട്ടികൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു മ്യൂസിയമാണ് വയനാട് അമ്പലവയലിലുള്ള പൈതൃക മ്യൂസിയം അവിടെ മധ്യശിലായുഗത്തില് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ശില്പങ്ങള് ഒരുപാട് വീരക്കല്ലുകള് ആയുധങ്ങള് ഇവയെല്ലാം അവിടെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വയനാടിൻ്റെ നാനാ ഭാഗത്ത് നിന്നും എടുത്തിട്ടുള്ള ഒരുപാട് തരം മണ്ണുകള് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വയനാടിൻ്റെ ഗോത്രസമൂഹം ഉപയോഗിച്ചിരുന്ന കുറേപാട് വീട്ട് ഉപകരണങ്ങള് ഇതൊക്കെ അവിടെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട് പിന്നേ ഇതുപോലെ തന്നെ മറ്റൊരു മ്യൂസിയമാണ് എടക്കൽ ഗുഹ അവിടെ മാനന്തവാടി നെന്മേനി വില്ലേജിലാണ് അമ്പുകുത്തി മലയുടെ ചെരുവിലാണ് ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അവിടെ പുരാതന സമൂഹം കല്ലിൽ കൊത്തിയ മനുഷ്യരൂപങ്ങൾ മൃഗ ചിത്രങ്ങൾ പിന്നെ ജ്യാമിതീയ രൂപങ്ങൾ ചക്രങ്ങൾ എന്നിവയെല്ലാം അവിടെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട്